ഹലോ സാറേ ആ ഇത് ഡയറി മിൽക്ക് ൻ്റെ അതിൻ്റെ സ്ഥാപനമല്ലേ ആ സാറേ ഞാനേ ഞങ്ങളിവിടെ ഒരു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സ്ഥാപനമാണ് അപ്പം ഞങ്ങളിവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങള് ഇവിടെ എടുത്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് അപ്പം ആ ഒരു ബിസിനസ് നടത്താനായിട്ടാണ് അപ്പം അവിടെ എന്നതൊക്കെയാണ് ചെയ്യുന്നത് അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലേ ആ ആ ഉവ്വ ഉവ്വ് ആ ഓക്കെ ഓക്കെ അ അ അപ്പം അത് നമ്മുടെ എല്ലാം ഉവ്വ ഉവ്വ ഉവ്വ് അ അതൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട സാധനങ്ങളാണോ നെയ്യും പാലും ഒക്കെ ഓക്കെ ഓക്കേ ഉവ്വ ആ പാല് ആ ഉവ്വവ്വവ്വ് അ അ ഇനി അതിൻ്റെ ഈ എന്നാ ചോക്ലേറ്റും അങ്ങനെ അതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് എങ്ങനെയാന്ന് പറയാവോ ആ ഓക്കെ അങ്ങനെ ആ ആ ഉവ്വവ്വ് ആ നിങ്ങളത് ഇവിടെ ഉവ്വവ്വവ് അത് സാധനങ്ങൾ സാധനങ്ങൾ ഇവിടെ എത്തിച്ച് തരുവോ ആണോ അ അ അ ആ അത് ശരി ആ അ ഞങ്ങളെ ഇവിടെ ഒരു ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പ് ഷോപ്പ് തുടങ്ങാൻ പുതിയൊരു ഷോപ്പ് ഇങ്ങനെ സ്പെഷൽ സ്കൂളിലെ കുട്ടികളാണ് അപ്പം ഞങ്ങൾക്കൊരു പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം പിള്ളേർക്ക് അതൊരു വരുമാനം അതിലൂടെ കിട്ടാനും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉവ്വവ്വവ്വവ് ആ അപ്പോൾ ഇത് എവിടായിട്ടാണ് ട്ടാ അതിൻ്റെ സ്ഥാപനം അത് എവിടായിട്ടാണ് ഒന്ന് പറയാവോ ഉവ്വ് ഉവ്വവ്വവ് ആ അ അ എന്നാൽ വരാം കേട്ടോ ആ അ ശരി ഓക്കെ താങ്ക്യൂ